എനിക്ക് ഉയരങ്ങളെ ചെറുപ്പം മുതലേ ഭയങ്കര പേടിയാണ് ഞാൻ വീട്ടിൽ സ്റ്റെയറിൻ്റെ മണ്ടയ്ക്കൊന്നും കയറാറില്ല കയറി കഴിഞ്ഞ് താഴോട്ട് നോക്കി കഴിഞ്ഞാൽ തല കറങ്ങുന്നതുപോലെ ഞാൻ ഛർദ്ദിക്കുക ഒക്കെ ചെയ്യുമായിരുന്നു കുഞ്ഞിലേ മുതൽ പിന്നെ എവിടെയെങ്കിലും ഒക്കെ കറങ്ങാനൊക്കെ പോകുമ്പോഴത്തേക്കും മലയുടെ മണ്ടയ്ക്കൊക്കെ കയറി കഴിഞ്ഞാൽ എന്നെ എന്നെ ഞാൻ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ കമിഴ്ന്ന് ഇങ്ങനെ തോളത്ത് കിടക്കുള്ളൂ നോക്കില്ല നോക്കി കഴിഞ്ഞാൽ തല കറങ്ങും ഛർദ്ദിക്കും അങ്ങനെ ഒക്കെ ഉള്ളൊരു തോന്നൽ ഉണ്ടായത് കാരണം ഞാൻ ഒന്നും ചെയ്യാറില്ലായിരുന്നു അങ്ങനെ ഉയരത്ത് ഉയരങ്ങളിലേക്ക് ഞാൻ പോയിട്ടില്ല കാരണം ഉയരത്തെ പേടി കൊണ്ട് തന്നെയാണ് പിന്നെ വ് ഈ തുണിയൊക്കെ കഴുകിയിട്ട് മുകളിൽ കൊണ്ട് നിരത്താൻ നേരത്ത് ഞാൻ അങ്ങനെ കയറത്തൊന്നും ഇല്ല കയറിയാൽ തന്നെ പെട്ടെന്ന് നിരത്തിയിട്ട് താഴെ ഇറങ്ങും അങ്ങോട്ടോ ഇങ്ങോട്ടോ നോക്കിയാൽ എന്തൊക്കെയോ കറങ്ങുന്നതുപോലെ ഒക്കെ ഉള്ളൊരു ആ ഒരു ഫീലിങ്ങ്സ് ഉണ്ടായത് കാരണം ഞാനത് നോക്കാറില്ല പക്ഷേ വള വളർന്ന് വളർന്ന് വന്നപ്പോഴും എനിക്കിത് ഇങ്ങനെ മനസ്സിൽ കിടക്കുന്നത് കാരണം ഞാനങ്ങനെ ഉയരങ്ങളിൽ കയറാനോ അവിടെ നിന്ന് താഴോട്ട് നോക്കാനോ ഒന്നും പോവില്ല പിന്നെ ഞങ്ങൾ ഇങ്ങനെ കസിൻസ് ഒക്കെ ആയിട്ട് കറങ്ങാൻ ഒരു സ്ഥലത്ത് കറങ്ങാൻ പോയപ്പോഴത്തേക്കും അവിടെ ഒരു മലയിൽ കയറേണ്ടി വന്നു എന്നെ കൊണ്ട് കയറി കയറാൻ എന്നെ പ്രേരിപ്പിച്ചതാണ് അല്ലാതെ ഞാൻ കയറിയതല്ല സ്വയമേ കയറിയതല്ല ഞങ്ങൾ ഇങ്ങനെ താഴെ നിന്നപ്പം എനിക്ക് ഉയരം മല കയറാൻ പേടി ആയതുകൊണ്ട് തന്നെ കയറിയില്ല താഴെ തന്നെ നിന്നു അപ്പം എല്ലാവരും കയറ് കയറെന്ന് പറഞ്ഞാലും ഞാൻ കയറിയില്ല പേടി അല്ലേ പ് ഇപ്പം ഒരു ഒരു കൊച്ച് ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ ഒരു അഞ്ചാറ് വയസ്സുള്ള അപ്പം അവളെയും താഴ നിർത്തിയിട്ട് ഇവർ എല്ലാവരും മല കയറാൻ പോയി ഇല്ലിക്കക്കല്ലായിരുന്നു അപ്പം അത് കാണാൻ കയറി പോയി ഞങ്ങൾ ഇങ്ങനെ താഴെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ കൊച്ചിങ്ങനെ കയറാൻ കയറാനായിട്ട് ശ്രമിച്ചു ഞാൻ പറഞ്ഞു കയറേണ്ട കയറി കഴിഞ്ഞാൽ നമുക്ക് തല കറങ്ങുന്നത് പോലെ ഒക്കെ തോന്നും ഛർദ്ദിക്കാൻ വരും കയറേണ്ട എന്ന് പറഞ്ഞു പക്ഷേ കുറച്ചുനേരം കൊച്ച് അവിടെ നിന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെയും അത് കയറണമെന്ന് പറഞ്ഞങ്ങ് കയറി കയറി പോവുവാണ് അപ്പം മുകളിൽ നിന്ന് അതിൻ്റെ അമ്മ വിളിച്ച് പറഞ്ഞു എന്നാൽ അവളെയും കൊണ്ട് കയറി വരാൻ പറഞ്ഞു പക്ഷേ എനിക്ക് പേടിയാണെന്നുള്ള കാര്യം അവർക്ക് അറിയില്ലല്ലോ ഞാൻ പറഞ്ഞു ഇല്ല വാ ഇങ്ങ് വാ എന്നൊന്നും വിളിച്ചിട്ട് അത് വന്നില്ല പിന്നെ അതിൻ്റെ പുറകെ ഞാൻ ചെന്നു പതുക്കെ പതുക്കെ അതിനെ കൊണ്ട് കേറ്റ് കയറി അതിനെ സുരക്ഷിതമായിട്ട് അവിടെ നിർത്തണമല്ലോ അപ്പം അതിനെ കൊണ്ട് കയറി മുകളിൽ ചെന്നപ്പോഴത്തേക്കും എന്നോട് അവിടെ നിന്ന എൻ്റെ കസിൻസ് ചോദിച്ചു നിനക്ക് പേടി ഒന്നും ഇല്ലേ പേടി ഒന്നും ഇല്ലായിരുന്നോ അതൊക്കെ മാറിയോ എന്നൊക്കെ ചോദിച്ചു അപ്പോഴാണ് പേടിയുടെ കാര്യം ഞാൻ ഓർത്തത് പിന്നെ ആ ഒരു ആ ഒരു ആ ഒരു ടെൻഡൻസി വരാഞ്ഞത് കാരണം പിന്നെ എനിക്കൊന്നും തോന്നിയില്ല അവിടെ നിന്ന് ഞങ്ങൾ പ്രകൃതിയെല്ലാം ആസ്വദിച്ച് പിന്നെ താഴ വന്നു പിന്നെ വീട്ടിൽ വീട്ടിൽ കുറേ കുറേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എനിക്ക് സ്റ്റെയർ കയറുന്നതിലൊന്നും പ്രശ്നമില്ല മുകളിലൊക്കെ ചെന്ന് നിന്ന് താഴോട്ടൊന്ന് നോക്കിയാലും വലിയ പേടി ഒന്നും തോന്നിട്ടില്ല അപ്പം എനിക്കാ ഭയത്തെ മറികടക്കാൻ വേണ്ടിയിട്ടായിരിക്കും അന്നാ കൊച്ചിനെ കൂട്ടിക്കൊണ്ട് എനിക്ക് മുകളിൽ പോകേണ്ടി വന്നത് അപ്പം എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ നമ്മളെ കൊണ്ട് സാധിക്കില്ല എന്നും പറഞ്ഞ് വെച്ചുകൊണ്ട് ഇരുന്നുകഴിഞ്ഞാൽ അതൊരിക്കലും സാധിക്കില്ല അപ്പം നമ്മൾ അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം അത് മാറ്റി എടുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്